നമ്മുടെ സംസ്ഥ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ മലയാളഭാഷാ വലിയൊരു പങ്കു തന്നെയാണ് വഹിക്കുന്നത് ഇന്നേതൊരു സംസ്ഥാനത്ത് ഇന്നേതൊരു ഭാഗത്ത് പോയാലും മലയാളഭാഷയിൽ മലയാളഭാഷ സംസാരിക്കുന്നത് ഒരു ഒരാളില്ലാത്ത ഒരു ഒരു സ്ഥലത്തൂല്ല ഏതൊരു രാജ്യത്ത് നോക്കിയാലും ഏതൊരു രാജ്യത്താണെങ്കിലും ഒരു ഒരു മലയാളഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും എവിടെങ്കിലുവൊക്കെ ഉണ്ടായിരിക്കും അത് തന്നെ നമുക്ക് മലയാളികൾക്കൊരു വലിയൊരു പ്രചോദനാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനും മലയാളഭാഷ നമുക്ക് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുവൊക്കെ വലിയ വലിയൊരു നേട്ടം തന്നെയാണത് അതുപോലെ തന്നെ സംസ്ഥാന സാംസ്കാരിക സ്വത്തെന്ന് പറയുമ്പൊ ഏതൊരു സാംസ്കാരിക തലത്തിലും നോക്കിയാലും മലയാളഭാഷയ്ക്ക് മുൻതൂക്കം തന്നെ നൽകുന്നുണ്ട്